ഇവിടെ നമ്മുടെ സമൂഹത്തിൽ നൃത്തം ഒരു പ്രധാന പങ്കുവഹിക്കുന്ന ഒരുപാട് പരിപാടികളുണ്ട് പരിപാടികളെന്നു പറയുമ്പോൾ നമ്മുടെ സ്കൂളിലെ പരിപാടികളിൽ ഡാന്സ് നൃത്തങ്ങൾ ഭയങ്കരം ആയിട്ട് വളരെ മുഖ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ ഉത്സവങ്ങൾക്ക് അമ്പലത്തിലെ ഉത്സവങ്ങൾക്കെന്നു പറഞ്ഞാൽ പ്രധാനമായിട്ടും നൃത്തം ഉറപ്പാണ് സ്റ്റേജിൽ നൃത്തം പാട്ട് അങ്ങനെ ഉള്ളത് പിന്നെ ഓണത്തിന് ഓണത്തിന് നമ്മുടെ തിരുവാതിര കളി തിരുവാതിരകളി എന്ന് അര്ത്ഥം നമ്മുടെ ഓണത്തിന് ചെയ്യാറുണ്ട് അത് നല്ല രസമുള്ള ഒരു ഇതാണ് അത് ഭങ്കര നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് ഓണത്തിന് തിരുവാതിര എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാന് പറ്റാത്ത ഒരു കാര്യമാണ് എന്തൂകൊണ്ടെന്ന് വച്ചാൽ പണ്ടു മുതല്ക്കേ പണ്ടുമുതല്ക്കേ ഇത് ചെയ്ത് വരുന്നതാണ് ഈ തിരുവാതിര എന്ന് പറയുന്നത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ നാടോടി നൃത്തങ്ങളുണ്ട് നാടോടി നൃത്തമെന്ന് പറയുമ്പോൾ ഈ കലോല്സവങ്ങൾക്ക് നാടോടി നൃത്തം ചെയ്യാറുണ്ട് സ്കൂളിലെ കോമ്പറ്റിഷനുകൾ കുട്ടികൾ തമ്മിൽ കോമ്പറ്റിഷനൊക്കെ വയ്ക്കുമ്പോൾ ഈ നാടോടിനൃത്തം ചെയ്യാറുണ്ട് പിന്നെ ഈ ഭരതനാട്യം കുച്ചിപ്പുടി അങ്ങനെയുള്ള നൃത്തങ്ങൾ സ്കൂളിൽ കോമ്പറ്റിഷന് ചെയ്യാറുണ്ട് പിന്നെ അമ്പലത്തില് ഉത്സവത്തിൽ ചെയ്യാറുണ്ട് സ്കൂളിലും ചെയ്യാറുണ്ട് പിന്നെ വേറെ പ്രോഗ്രാംസൊക്കെ ഉണ്ടാകുമ്പോഴാണ് എന്ന് പറയുമ്പോൾ വേറെ പരിപാടികളെന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ കനകക്കുന്നുണ്ട് കനകക്കുന്ന് മ്യുസിയത്തിലൊക്കെ വച്ച് ഓരോ പരിപാടികൾ നടക്കും അവിടെ ഈ ഭരതനാട്യവും കുച്ചിപ്പുടി അങ്ങനെയുള്ള ശാസ്ത്രീയ നൃത്തങ്ങൾ കളിക്കാറുണ്ട് പിന്നെ നാടോടിനൃത്തം പിന്നെ ഈ തനതായ നൃത്തങ്ങളുണ്ട് എന്നു പറയുമ്പോൾ ഈ ആദിവാസികളുടെ നൃത്തം അത് അവരുടെ പ്രത്യേക ഉത്സവങ്ങൾക്ക് അവർ കളിക്കുന്നതാണ് പ്രത്യേക അവരു ഉത്സവങ്ങൾക്ക് അവർ ഒരുമിച്ച് ഒരുമിച്ച് കൂടി ആ നാട്ടിലുള്ള എല്ല ഗ്രാമത്തിലുള്ള എല്ലാവരും കുടെ ചേര്ന്ന് ഒരു നൃത്തം കാഴ്ച വയ്ക്കും അത് ഭയങ്കര നല്ല ഒരു രസമുള്ള ഒരു പരിപാടിയാണ് സമൂഹത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഇത് തന്നെയാണ് നൃത്തമെന്നു പറയുന്നത് നൃത്തം നമ്മുടെ ഒരു പ്രധാന ഇത് തന്നെയാന്ന്